നമ്മൾ നിർമ്മിക്കുന്ന ഡിസൈന് നമുക്ക് സ്വാഭാവികായിട്ടും നമുക്ക് കാ നമുക്ക് അനുയോജ്യമായൊരു വസ്ത്ര ധാരണ രീതിയായിരിക്കണം നമ്മള് തയ്ക്കാൻ കൊടുക്കുമ്പൊഴാണേലും നമ്മള് അനുയോജ്യമായിട്ടുള്ളൊരു വസ്ത് വസ്ത്ര വസ്ത്ര ധാരണ രീതിയാണ് നമ്മള് നോക്കാറുള്ളത് നമ്മുടെ പ്രായത്തിൻ്റെയും അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാട്കള് അത് നമ്മള് താമസിക്കുന്ന ആ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു വസ്ത്രം ആയിരിക്കണം നമ്മള് ധരിക്കുന്നത് അങ്ങനെയുള്ളൊരു നിർബന്ധം ഉള്ള ഒരാളാണ് ഞാന് അപ്പം അതനുസരിച്ചുള്ള ഒരു മോഡലാണ് തെരഞ്ഞെടുക്കാറുള്ളത് പിന്നെ നമുക്ക് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളൊക്കെ നമ്മള് നോക്കാറുണ്ട് ഫേസ്ബുക്ക് അങ്ങനെയുള്ള അവിടെ ഒക്കെ വരുന്ന ഓരോ പടങ്ങളും ഒക്കെ നമ്മള് നോക്കാറുണ്ട് അതൊക്കെ നമ്മള് അതിന്റെ അകത്ത് നല്ല രീതിയില് കാരണം നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഫാഷനുകളാണെങ്കില് നമ്മളത് തെരഞ്ഞെടുക്കാറുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കള് എന്താ നമുക്ക് ഒത്തിരി സഹായം ചെയ്യാറുണ്ട് സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങള് നമ്മള് തേടാറും ഉണ്ട് നമുക്കനുയോജ്യമായ കളറ് കിട്ടാനും അനുയോജ്യമായ മോഡലുകൾ കിട്ടാനായിട്ട് സുഹൃത്തുക്കളുടെ സഹായം ധാരാളം തേടാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഓൺലൈൻ മാധ്യമം ഓൺലൈൻ മാധ്യമങ്ങളെന്ന് പറഞ്ഞാല് ഇഷ്ട ബ്രാൻഡുകളൊന്നും നമുക്ക് മീഷോയൊക്കെ ഇഷ്ട ബ്രാൻഡുകളാണ് പക്ഷെ അതിലിൽ അമിതമായൊരു താല്പര്യം അതിന് കൊടുക്കാറില്ല അമിതമായൊരു സപ്പോർട്ട് അതിൽ നിന്നും നമ്മള് നേടിയെടുക്കാറുമില്ല നമ്മുടെ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കള് വഴി അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിന് ഇണങ്ങിയ ഒരു വസ്ത്ര ധാരണവാണ് നമ്മള് തെരഞ്ഞെടുക്കാറുള്ളത് അതനുസരിച്ചുള്ളൊരു അതനുസരിച്ചാണ് നമ്മള് എല്ലാം തെരഞ്ഞെടുക്കുന്നത് അതിനുള്ള ആശയങ്ങള് നമ്മ നമ്മള് കൂടുതലും ഒരു പരമ്പരാഗതമായ രീതീ കൈവിട്ട് പോകാതെ അതിനോട് തന്നെ നമ്മള് തന്നെ ആലോചിച്ച് ആ ഒരു രീതിയിലാണ് നമ്മള് കണ്ടെത്തുന്നത് പുതിയ മോഡലാണേലും അത് ഓരോരുത്തർ എത്ര നമുക്കത് അനുയോജ്യമാണ് എന്ന് ആലോചിച്ചതിന് ശേഷം എത്ര മോഡലാണേലും നമ്മള് അത് ഉപയോഗിക്കാറുള്ളൂ അല്ലാ പുതിയ മോഡലുകൾ വന്നാൽ അത് എത്ര ഇതാന്ന് പറ എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മളതിൽ നിന്ന് വേറെ എത്ര ഇതാണെങ്കിലും നമ്മളത് ഉപയോഗിക്കാറില്ല നമുക്ക് അനുയോജ്യമായതാണെങ്കിലും നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമാണെങ്കിലും മാത്രമേ നമ്മള് എത്ര പുതിയ മോഡലാണേലും നമ്മളത് ഉപയോഗിക്കാറുള്ളൂ നമുക്കനുയോജ്യമായിരിക്കണം നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിരിക്കണം അതിട്ട് നമ്മള് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആരും നമ്മളെ നോക്കി കുറ്റം പറയരുത് ആ ഒരു രീതിയിൽ ഉള്ള നമുക്ക് അനുയോജ്യമായ ഒരു വസ്ത്ര ധാരണ രീതി അങ്ങനെയാണ് തെരഞ്ഞെടുക്കാറുള്ളത്